ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഹൈക്കിങ്ങിന് പോയിട്ടുണ്ട് പണ്ട് കുറുമ്പാലക്കോട്ടയിലാണ് പോയത് വണ്ടിയിൽ കുറേ ദൂരമുണ്ടായിരുന്നു അതും ഞങ്ങൾ പോയി വലിയ ഒരു മലയാണ് അത് നമ്മൾ കയറി അവിടെ നല്ല സൺറൈസൊക്കെ കണ്ടു നല്ല ചായയൊക്കെ കുടിച്ചു നല്ല രസമായിരുന്നു നല്ല ഹൈക്കിങ്ങ് ആയിരുന്നു തിരിച്ചു അതേപോലെ പോയി പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ഹൈക്കിങ്ങിന് പോവാറുണ്ട് ഓരോരോ മലയിൽ അവർ ഇടയ്ക്ക് വിളിക്കുമ്പം ഞാൻ പോകും നല്ല ഒരു ഹൈക്കിങ്ങ് ആണ് എനിക്ക് ഹൈക്കിങ്ങ് നല്ല ഇഷ്ടമാണ് കൂട്ടുകാരുടെ കൂടെ പോവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഹൈക്കിങ്ങിന് ഹൈക്കിങ്ങിന് പോവാൻ നല്ല രസമാണ് നല്ല ഫൺ ആണ് അതുമല്ല ഇതേപോലെ അഡ്വഞ്ചർ ആണ് മലയൊക്കെ കയറാൻ നല്ല രസമാണ് എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് നല്ല ഒരു സംഭവാണ് ഇത് നിങ്ങൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇനിയും അവസരം കിട്ടിയാൽ ഞാൻ ഇനിയും ഹൈക്കിങ്ങിന് പോകും നല്ലതാണ് ഹൈക്കൊക്കെ നല്ല രസമാണ് മലയൊക്കെ കയറാൻ നല്ല രസമാണ് മല കയറുമ്പം നമുക്ക് പ്രത്യേക രസമാണ് അതും കൂട്ടുകാരോടൊപ്പം ആണെങ്കിൽ നല്ല രസമാണ് സംസാരിച്ചൊക്കെ പോവാൻ നല്ല രസമാണ് ഹൈക്കിങ്ങിന് ഹൈക്കിങ്ങ് നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഹൈക്കിങ്ങ് ചെയ്യാൻ